ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് പല പല സംസ്കാരങ്ങളുണ്ട് പല പല ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് കേരളത്തിൽ പച്ചപ്പാണ് എന്നുണ്ടെങ്കിൽ എന്താണ് രാജസ്ഥാനിൽ മരുഭൂമിയാണ് അപ്പം കേ ഇന്ത്യയുടെ പല അവസ്ഥകളും കാണിച്ചുകൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഒരവസ്ഥയായിട്ടുള്ള പച്ചപ്പ് ഒരു ഫോട്ടോയിലൂടെ കാണിക്കും പിന്നെ അതേപോലെ തന്നെ രാജസ്ഥാനിന്റെ അവസ്ഥ കാണിച്ചുകൊടുക്കാനായിട്ട് എന്താണ് മരുഭൂമികൾ എടുക്കും പിന്നെ പിന്നെ ഹിമാചൽ പ്രദേശ് പിന്നെ ഉത്തരേന്ത്യൻ കൺ സംസ്ഥാനങ്ങളൊക്കെ കാണിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിമാലയം പർവ്വതനിരകൾ എടുക്കാം കാരണം ഹിമാലയ പർവ്വതനിര എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ഒരു ഒരു അടയാളമാണെന്ന് പറയാം ഏറ്റവും ഉയരുള്ളെ പർവ്വതം എന്ന് പറഞ്ഞാൽ എന്ത് ഹിമാലയം പർവ്വതങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നതും ആ പർവതനിരകളാണ് കാരണം ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നു അങ്ങനെയുള്ളതിനൊക്കെ പിന്നെ പറയുന്ന താജ് മഹൽ എന്താണ് ഏഴ് അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് താജ് മഹൽ താജ് മഹൽ ലോകത്തിലെ എല്ലായിടത്തും അറിയപ്പെട്ടതാണ് നമ്മുടെ ചരിത്രം പോലും നമുക്ക് കുറേ കിട്ടിയത് താജ് മഹൽ എന്ന് പറയുന്ന ആ ഒരു നിർമിതി കൊണ്ടാണ് പിന്നെ മാർബിൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ വാസ്തുവിദ്യാപരമായിട്ടും പിന്നെ സംസ്കാരികപരമായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആ താജ് മഹൽ എന്ന് പറയുന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ലോകത്തെ കാണിച്ചുകൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഹിമാചൽ പ്രദേശ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും കൃഷിയോടായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട നല്ല ഫോട്ടോസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ എടുക്കുക